വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണം നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ലെന്നാണ് തോന്നുന്നത് സമൂഹം നമ്മുടെ സമൂഹം അത് പുരാതന കാലത്താണെങ്കിലും ആധുനിക കാലത്താണെങ്കിലും ഗ്രാമവാസികൾക്ക് ഗ്രാമീണ ജനതയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട് ഇപ്പം നല്ല വിദ്യാഭ്യാസരീതിയും നല്ല വിദ്യാലയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത് നല്ല വിദ്യാലയങ്ങളുടെ അഭാവമൊക്കെ മൂലം ഗ്രാമവാസികൾക്ക് അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ലഭിക്കാതെയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യതക്കുറവുമൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അത് ആധുനികയുഗമെന്നോ പുരാതനയുഗമെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ അതിപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് തോന്നുന്നത് സമൂഹം നമ്മുടെ സമൂഹം ഗ്രാമീണ ജനതയെ പലതരത്തിലൊരു താഴെത്തട്ടിൽപ്പെടുത്തുകയും അവർക്കൊരു വിവരമില്ലായ്മയുടെ ഒരു അഭാവം വിവരമില്ലായ്മ അവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നുള്ള ഒരു ഒരു അവർക്ക് ഇപ്പോള് നിലനിൽക്കുന്നത് അത് പലതരത്തിലും കുട്ടികളെയും മുതിർന്നവരെയും യുവാക്കളെയും അത് പലതരത്തിലും ബാധിക്കുന്നുമുണ്ട് അത് നമുക്കാ പ്രശ്നങ്ങളെ ബാധിക്കാതെ അതിനെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങള് മാറ്റിനിർത്തി ഗ്രാമീണ ജനതയ മുന്നോട്ട് കൊണ്ടുവരണമങ്കില് അവർക്ക് നല്ല വിദ്യാഭ്യാസവും അവർക്ക് ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അവരുടേത് അംഗീകരിക്കപ്പെടുകയും അത് ലഭ്യമാക്കുകയും ചെയ്യണമെന്നാണ് തോന്നുന്നത് നഗരങ്ങളിലുള്ള കുട്ടികൾക്കും യുവതി യുവാക്കൾക്കുമൊക്കെ വിദ്യാഭ്യാസം കൂടുതലുള്ളതുകൊണ്ടും അറിവിൻ്റെ മേൽക്കോയ്മ കൊണ്ടുമൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ജോലിയും സുഖസൗകര്യങ്ങളുമൊക്കെ ലഭ്യമാക്കി അവർക്ക് നല്ല രീതിയിൽ വസിക്കാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട് പക്ഷേ ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലഭ്യമാക്കാനുള്ള അഭാവവുമൊക്കെ കാരണം അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു താരതമ്യപഠനത്തിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് നഗര ജനതയ്ക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം കൂടി നൽകിക്കൊണ്ട് അവരെയും മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു ഭാവി തലമുറ നമുക്ക് എല്ലാ സമൂഹത്തിനും ലഭ്യമാക്കാമെന്നാണ് എൻ്റെയൊരു അഭിപ്രായം അത് ഗ്രാമീണരെന്നോ നഗരവാസികളെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ ഒരു പരിഗണന നൽകി എല്ലാവരെയും മുന്നോട്ട് നയിക്കുക അതായിരിക്കും നല്ലത്